എനിക്കറിയപ്പെട്ട വിനോദങ്ങളെന്ന് പറയുന്നത് നൃത്തം വായന മൊബൈലിൽ സമയം ചിലവഴിക്കുക ചെടികളെ പരിപാലിക്കുക ഇതൊക്കെയാണ് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നൃത്തം ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഇടക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയം ഇടവേളകളിൽ കൂടാതെ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ഇങ്ങനെ കൊറിയോഗ്രാഫി ചെയ്യാറുണ്ട് അത് റീൽസ് ആയിട്ട് ഇടാറുണ്ട് പിന്നെ വായന ഉണ്ട് വായിക്കാൻ എനിക്കിഷ്ടമാണ് വായിക്കാറുണ്ട് അതുപോലെ തന്നെ ചെടികൾ എനിക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പല പല വെറൈറ്റി പൂവുകൾ ഉണ്ടെങ്കിൽ അത് കളക്റ്റ് ചെയ്യുക അതിനെ നടുക പരിപാലിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് മൊബൈൽ ഒഫ് കോഴ്സ് മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിൽ റീൽസ് കാണാറുണ്ട് യൂട്യൂബിൽ ഷോർട്ട്സ് കാണാറുണ്ട് അല്ലാതെ മൂവീസ് മൊബൈൽ മാറ്റി നിർത്താറില്ല മൊബൈലും നല്ല രീതിക്ക് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട വിനോദങ്ങളെന്ന് പറയുന്നത്